എനിക്ക് കൊല്ലത്തുനിന്ന് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ട്രെയിൻ ട്രെയിനി പോകാൻ വേണ്ടി ഒരു ടാക്സിക്കാരനെ വിളിച്ചിരുന്നു പുള്ളി വരാമെന്നു പറഞ്ഞു പക്ഷേ സമയത്ത് വന്നില്ല പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും ട്രെയിൻ പോയി അത് വളരെയധികം ബുദ്ധിമുട്ടായിത്തീർന്നു ഞാൻ അയാളെ ഒത്തിരി അരിശപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്തു അയാള് പറഞ്ഞു കാശ് ന്ന് പക്ഷെ കാശ് തന്ന എന്ത് ചെയ്യാനാ സമയത്ത് ചെന്നാലല്ലേ ട്രെയിൻ കയറി പറഞ്ഞ സ്ഥലത്ത് മറ്റുള്ള സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകാനായിരുന്നു അതുകൊണ്ട് എനിക്കത് സാധിച്ചില്ല പക്ഷേ അത് നമ്മള് നമ്മുടെ ഉത്തരവാദിത്തങ്ങള് അതനുസരിച്ച് ചെയ്താൽ ആ ട്രാ ടാക്സിക്കാരൻ സമയത്ത് വന്നിരുന്നെങ്കിൽ എനിക്ക് പോകുകയും ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ ആ ഡ്രൈവറിനെ പ്രതീക്ഷിച്ചു നിന്നു അതുകൊണ്ട് മറ്റുള്ള വണ്ടി ബുക്ക് ചെയ്തുമില്ല എനിക്ക് സമയത്ത് ട്രെയിൻ കിട്ടീയില്ല ട്രെയിനിൽ കയറാനും പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് മീറ്റിംഗ് പങ്കെടുക്കാനും പറ്റിയില്ല അവിടുത്തെ വിശിഷ്ട വ്യക്തികളെ കാണാനും പറ്റിയില്ല എൻ്റെ അഭിപ്രായങ്ങൾ അവിടെ പങ്കു വയ്ക്കാനും പറ്റിയില്ല അതുകൊണ്ട് അന്നത്തെ എൻ്റെ ഒരു പ്രവർത്തനവും നടന്നില്ല എൻ്റെ അന്നത്തെ ദിവസവും പോയി ആ മനുഷ്യനോട് ഞാൻ ഒത്തിരി അരിശപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്തു ആ മനുഷ്യൻ പാവമായിരുന്നു പക്ഷെ ഇങ്ങനെ എനിക്കിപ്പോള് സംബന്ധിക്കാൻ പറ്റാത്തപ്പോള് എനിക്ക് മനുഷ്യന് സ്വമേധയാ അരിശവും ദേഷ്യം വരും പക്ഷേ അത് അങ്ങനെ നമ്മള് നമ്മള് കണ്ട്രോൾ ചെയ്യണം പക്ഷേ കൺട്രോള് ചെയ്യാൻ പറ്റിയില്ല അത് വലിയൊരു ബുദ്ധിമുട്ടായിത്തീർന്നു അതുപോലെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ ചെയ്യ ഒരു ടാക്സിക്കാരനെ വിളിച്ചാൽ അയാൾ വരാൻ പറ്റത്തില്ലെന്ന് അയാള് മറ്റൊരു ടാക്സി ഏർപ്പാട് ചെയ്യാ അങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാവരും ഒരുപോലെ ജാഗരൂകരായിരിക്കണം പോകാൻ ഉള്ളവരും എനിക്ക് വേണമെങ്കി ആ മനുഷ്യനെ ഒന്നും കൂടെ വിളിക്കാമായിരുന്നു സമയത്തെത്തുമോ എത്തത്തില്ലയോന്നുള്ളത് പക്ഷേ ഞാൻ വിളിച്ചില്ല വരും എന്ന് വിശ്വസിച്ചു കൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഇനി മനുഷ്യൻ വന്നുമില്ല പക്ഷേ മനുഷ്യൻ വന്നു താമസിച്ചു വന്നു പക്ഷേ അയാള്ക്ക് പറ്റത്തില്ലെങ്കിൽ അയാള്ക്ക് എന്നെ വിളിച്ചു പറയാമായിരുന്നു അല്ലെങ്കിൽ ഞാന് എനിക്ക് അയാളോട് വിളിച്ചു ചോദിക്കാമായിരുന്നു അയാൾക്ക് വേറൊരു വണ്ടി എനിക്ക് അറേഞ്ച് ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ വിളിച്ചു ചോദിച്ചു അയാൾക്ക് വരാൻ പറ്റത്തില്ലായിരുന്നെങ്കില് എനിക്ക് വേറൊരു ആ വണ്ടി അറേഞ്ച് അങ്ങനെയാണ് നമ്മുടെ ഓരോരോ സാഹചര്യങ്ങള്ക്കും നമ്മള് നമ്മുടെ ബുദ്ധി പ്രയോഗിച്ചില്ലെങ്കിൽ നമ്മള്ക്ക് ഒരു സംഗതിയെ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല അത് ഒരു ദിവസം ഒരു സംഗതി ചെയ്തില്ലെങ്കിൽ മുന്നോട്ടുള്ള ആ മീറ്റിംഗ് വളരെയധികം ഉപകാരപ്രദവും ഒരു ഉത്തരവാദിത്വപ്രദവും ആയൊരു മീറ്റിംഗായിരുന്നു പക്ഷേ എനിക്കത് സംബന്ധിക്കാനും പറ്റിയില്ല അങ്ങനെ അത് വലിയൊരു ഇതായിത്തീർന്നു അങ്ങനെ ഒരിക്കലും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മള് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക നമ്മള് ഒരാളെ ഒരു കാര്യം ഉത്തരവാദിത്തപ്പെട്ടാൽ അദ്ദേഹം വരുമോ വരത്തില്ലയോ എന്ന് അന്വേഷിച്ചുകൊണ്ടു മുന്നോട്ടുപോകുക അന്വേഷിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഇതിപ്പോള് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വങ്ങള് മനസ്സിലാക്കി ചെയ്യുക ആരൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടോ അവരെല്ലാം ഉത്തരവാദിത്തങ്ങള് ചെയ്യുക അല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് അവസാനം സ്കോൾഡ് ചെയ്തതുകൊണ്ടോ വഴക്കു പറഞ്ഞുകൊണ്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല